ഓ നമുക്കിവിടെ ഇഷ്ടംപോലെ സ്ത സ്ഥലങ്ങളുണ്ട് കേട്ടോ കാണാൻ നമുക്ക് എത്ര ദിവസത്തേക്കുള്ള ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരാഴ്ചത്തേക്കാണോ ഓ ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട് നമുക്ക് വേണമെങ്കിൽ രണ്ടുദിവസം ലക്കിടിയിൽ അവിടെ വ്യൂ പോയിൻറ് അവിടെത്തന്നെ റിസോർട്ട് ഉണ്ട് സ്റ്റേ അവിടെത്തന്നെ ഒരുക്കാം അതുകഴിഞ്ഞിട്ട് നമുക്ക് അവിടെ എണ്ണൂറുണ്ട് എണ്ണൂർ പൂക്കോട് പിന്നെ ലക്കിടി വ്യൂ പോയിൻറ് അവിടെ ഒക്കെ കാണാം പിന്നെ പിറ്റേ ദിവസം വേണമെങ്കിൽ നമുക്ക് മേപ്പാടി ഭാഗത്ത് വരുമ്പം പിന്നെ ഫാൻറം പാറയുണ്ട് മീൻമുട്ടിയുണ്ട് പിന്നെ തൊള്ളായിരം കണ്ടിയുണ്ട് അവിടെ ഒക്കെ കാണാം നമുക്ക് ഓരോ ദിവസം ഓരോ ദിവസം നമുക്ക് ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട് കാണാൻ നിങ്ങൾക്ക് എവിടെയാണ് പോവേണ്ടത് എത്ര നേരം ഒരു ദിവസം എത്ര സ്ഥലങ്ങൾ പോവണം എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ച് ചെയ്യാമായിരുന്നു കോസ്റ്റോ എത്ര പേരാണ് ഉള്ളത് ഇരുപത്തയ്യായ്യിരം രൂപ വേണ്ടിവരും കേട്ടോ ഏകദേശം ഇരുപത്തയ്യായിരം ആയിരിക്കും ഇനി കുറവാണോ കൂടുതലാണോ എന്ന് നമ്മൾ വന്നുകഴിഞ്ഞതിനുശേഷം ഇതാക്കും നമ്മുടെ ഇവിടുന്ന് ഒരു ഡ്രൈവർ ഉണ്ടാവും നിങ്ങൾക്ക് എവിടെയാണോ പോവേണ്ടത് അവിടുന്ന് പിക്ക് ചെയ്യും കാര്യങ്ങളൊക്കെ കൊണ്ട് നിങ്ങളെ റിസോർട്ടിൽ ഇറക്കാനൊക്കെ ആൾക്കാരുണ്ടാവും ആ ഫുഡ് ഫുഡ് ഇതിൽ പെടുന്നില്ല വേണമെങ്കിൽ നമുക്ക് അതിൽ ആക്കാം ഫുഡ് അത്ര കോസ്റ്റ്ലി ആയിട്ടല്ല നമുക്ക് കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം അധികമൊന്നും ആവില്ല ഒരു അഞ്ചുദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ നമുക്ക് അത് നോക്കിക്കണ്ട് ചെയ്യാം എല്ലാം ഇപ്പോൾ നിങ്ങളിപ്പം ഒരു മൂന്ന് ദിവസം കൊണ്ടാണെങ്കിൽ നമുക്ക് മൂന്ന് ദിവസം കൊണ്ട് വയനാട് കവർ ചെയ്യാൻ പറ്റും പിന്നെ ഈ എക്സ്ട്രാ ഒരു ദിവസം കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ നേരം പിന്നെ കൂടുതൽ നേരം നമുക്കൊരു സ്ഥലത്ത് നിൽക്കാൻ പറ്റും നമ്മുടെ ഇഷ്ടത്തിന് കുറച്ചുംകൂടെ നേരം നിന്നിട്ട് നമുക്ക് അതിനനുസരിച്ച് ഇറങ്ങാൻ പറ്റും